ആ ഹലോ ആ പോകാവല്ലോ പോകാം നമുക്ക് കാഞ്ഞിരപ്പള്ളി പാലായൊക്കെ ഒന്ന് കറങ്ങാം കാശൊക്കെ ഇച്ചിരെ കയ്യിൽ കരുതിക്കോണെ നമ്മൾ ഒരു വണ്ടി പിടിച്ചേക്കട്ടെ നിങ്ങളുടെ കൂടെ ഒര് ടീമായിട്ടാണോ നമുക്ക് വലിയ വണ്ടി പിടിക്കണോ കാറ് പിടിച്ചാൽ മതിയോ വലിയ വണ്ടി പിടിക്കണോ ട്രാവലറ് വല്ലതും പിടിക്കണോ ആ കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് നമുക്ക് നല്ല കാലാവസ്ഥയാണ് ഇപ്പം മഞ്ഞൊക്കെ വീഴുന്ന സമയമാണ് നമുക്ക് റബ്ബർ തോട്ടമൊക്കെ ഒന്ന് കാണാം കാഞ്ഞിരപ്പള്ളിയിലോട്ട് തന്നെ പോന്നേക്കാം കേട്ടോ എന്നാൽ ശരിയെന്നാൽ ബാ വണ്ടിയേ കയറിക്കൊ ബാ ബാ പോയേക്കാം ആ ആ ആ എന്നാൽ നമുക്കേ നേരെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് തന്നെ നമ്മുടെ അച്ചായന്മ്മാര് കാഞ്ഞിരപ്പള്ളി അച്ചായമ്മാരെന്നറിയപ്പെടുന്നത് തന്നെ അവര് റബർ വിറ്റ് കാശ് ഉണ്ടാക്കിയതാണ് അവരച്ചായമ്മാരായത് കേട്ടോ അതൊക്കെ അറിയാവല്ലോ ആ ആ അതൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഇപ്പഴത്തേപ്പിള്ളാരോടൊന്ന് പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ അപ്പന്മാര് പറഞ്ഞ് കേട്ടിരിക്ക്ന്നതിത് നല്ല വാനം മാന്തി നല്ല മണ്ണൊക്കെ അങ്ങോട്ട് ഇളക്കിയിട്ട് റബ്ബർ ത്തൈ അങ്ങോട്ട് നട്ട്പിടിപ്പിക്കും എന്നിട്ട് ഇത് ചാല് കീറി വെക്കും നമ്മുടെ മഴക്കാലത്ത് മഴവെള്ളം ഇതിൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഇതിന് പതുക്കെ പതുക്കെ വലിച്ചെട്ത്താണിതിൻറ്റേ ഇലകളൊക്കെ പുഷ്ട്ടിക്കുന്നത് തടിക്ക് വണ്ണം വെക്കുന്നത് അങ്ങനെ തടി ഒരു മാതിരി ആയി കഴിയുമ്പം നമ്മള് ഇതിൻ്റെ പാല് എടുക്കാനായിട്ട് ഒരു ചെറിയ കത്തിക്കിത് വരയും വരഞ്ഞിട്ട് പാല് വെട്ടുന്നതിന് നമ്മുടെ ഈ മരത്തിനൊര്മാതിരി മൂന്ന് വയസ്സൊക്കെ ആയിക്കഴിയുമ്പം നമുക്ക് ചില മരങ്ങൾക്ക് നമുക്ക് വെട്ടാൻ തുടങ്ങും അത് മണ്ണ് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ഇത് ഡിമ്മന്ന് വലുതാകും വലുതായി കഴിയുമ്പം നമുക്ക് അറിയാം ഒരു പാല് കിട്ടുന്ന മരവാണെന്ന് തോന്നിയ ഉടനെ നമ്മളത് വെട്ടാൻ തുടങ്ങും വെട്ടാൻ തുടങ്ങിയിട്ട് ചിരട്ട പോലൊര് സാധനം പിടിപ്പിക്കും ആ പാല് അതിനകത്തോട്ടാണ് ഇറ്റിറ്റ് വീഴുന്നത് എന്നിട്ട് മഴക്കാലത്ത് മഴവെള്ളം വീഴാതിരിക്കാനായ്ട്ടിതിനൊര് പ്ലാസ്റ്റിക്ക് കോട്ടിങ്ങ് മുകളിൽ വെച്ച് കൊടുക്കും എന്നിട്ട് ഈ പാല് എല്ലാ ദിവസവും രാവിലെ ഒരു പണിക്കാരൻ രാവിലെ പോയൊര് ബക്കറ്റുവായിട്ട് പോയി അത് ഒഴിച്ചൊഴിച്ചൊഴിച്ചെട്ക്കും ഒഴിച്ചെടുത്തിട്ട് ചിലരുടെ വീട്ടുൽ ഈ റോളറുണ്ട് ഈ റോളറിന് അകത്തോട്ട് ഈ പാല് നമ്മുടെ മിക്സ് ഒക്കെ ചെയ്ത് വെച്ച് ആ റോളറിനകത്തിട്ട് ഇത് ഷീറ്റാക്കും ഷീറ്റാക്കി ഇതിൻ്റെ ബാക്കി വരുന്ന ഒട്ടുപാല് എന്ന് പറഞ്ഞ അത് കുറച്ച് വേറെ വിൽക്കാം ഈ പാലിന് മുന്നൂറ് രൂപ നാനൂറ് രൂപ കിലോയ്ക്ക് വിലയുണ്ട് അങ്ങനെ ഇത് കൊണ്ട് നമ്മുടെ എമ്മാർ ടയറൊക്കെ ഉണ്ടാക്കുന്നത് ഈ പാല്കൊണ്ടല്ലേ ഈ റബ്ബറക്കെ നമ്മൾ ആ നമുക്ക് റബ്ബറ് വെക്കാം ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന ഒര് മരവാണല്ലോ റബ്ബറ് റബ്ബറ് കൊണ്ട് നമുക്കത് പണ്ടത്തെക്കാലത്ത് ഇപ്പഴല്ലേ ഗ്യാസ് അടുപ്പൊക്കെ വന്നിരിക്കുന്നത് പണ്ട് എല്ലാ രാജ്യത്തും ഇത് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ കയറ്റുമതി നാലാം സ്ഥാനമെന്ന് കേട്ടിട്ടില്ലേ ആ അങ്ങനെ വരുന്ന നമ്മുടെ ഇന്ത്യയിലെ ഭൂപ്രകൃതിയനുസരിച്ച് ഇത് പ്രത്യേകതയുള്ള അപ്പം ഏറ്റവും നല്ലത് കേരളത്തിലാണ് റബ്ബറ് എന്ന ഉൽപ്പാദനത്തിന് അതായത് ഇത് വച്ചുപിടിപ്പിച്ച് വലുതാക്കി ഉത്പാദനത്തിലേറ്റവും നല്ലത് കേരളത്തിലെ കാലാവസ്ഥയാണ് ആ തണുപ്പുള്ള രാജ്യത്തിത് പരീക്ഷിച്ചിട്ടിതിൻ്റെ ഇല മുഴുവൻ പ്രാണികള് കൊണ്ടുപോകുവാണ് തണുപ്പത്തിതിനെ അതിജീവിക്കാനായിട്ട് എളത്ത താ ഇതായിക്കഴിയ്മ്പഴേ പല പല കീടങ്ങള് വന്നിതിൻ്റെ ഇല പോകും ഇതിനെ മുകളിലോട്ട് വളർത്തുന്നില്ല അതെ സമയം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഇത് പറ്റും ചില സമയത്ത് മഞ്ഞ് ചില സമയത്ത് മഴ ചിലപ്പം ചൂട് ഈ കാലാവസ്ഥയിലിത് തഴച്ചങ്ങ് വളരുകയാണ് ഇതിപ്പം എല്ലായിടത്തും നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാലായിലേയ്ക്ക് കണ്ടോ കണ്ടോ അത് കണ്ടോ ആ കാണുന്നത് ഭയങ്കര ഒര് റബ്ബർത്തോട്ടവാണ് കണ്ടോ അവിടെ നിന്ന് വെട്ടുന്ന കണ്ടോ

ഓക്കേ താങ്ക്യു താങ്ക്യു ഓക്കേ താങ്ക്യു